ഹലോ സെൻറ് ജോർജ് സ്റ്റേഷനറി ഷോപ്പ് ആണ് ആരാണ് എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ ആ ഓൺലൈൻ ആയിട്ടുള്ള ഡെലിവറി ആണോ മേഡം ആ നമുക്ക് ഫൈവ് തൗസൻഡ് തൊട്ട് ടെൻ തൗസൻഡ് വരെ ഉള്ള മിക്സികളാണ് ഇവിടെ ഉള്ളത് പല കമ്പനികളുടെ ഉണ്ട് പ്രീതി അത് ബജാജ് അങ്ങനെ പല കമ്പനി കമ്പനികളുടെ ഉണ്ട് അതിന്റെ വില വയ്ക്ക് അതനുസരിച്ച് വ്യത്യാസം ഉണ്ട് ക്വാളിറ്റി അനുസരിച്ച് സ്റ്റീൽ ആണോ അല്ല ആ മിക്സി എന്താണ് എത്ര റേഞ്ചിന്റെ ആണ് മേഡം നോക്കുന്നത് ഡിസ്ക്കൗണ്ട് ഒരു പത്ത് പ ടെൻ പെർസെൻറേജ് ഡിസ്ക്കൗണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ അത് നമ്മൾ ഒരു ആറായിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് അത്രയും ഡിസ്ക്കൗണ്ട് വരുന്നത് നമുക്ക് പ്രീതിയുടെ ഒക്കെ മിക്സി ഉണ്ട് അത് നോക്കട്ടെ അത് ഒരു സെവൻ തൗസൻഡ് ഒക്കെ വരും നമുക്ക് ഒരൂ സിക്സ് തൗസൻഡ് സംതിങ്ങ് സിക്സ് സിക്സ് സിക്സ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ഒക്കെ അല്ലൊ സെവൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആണ് പ്രൈസ് സിക്സ് തൗസൻഡ് ത്രീ ഹണ്ട്രഡിന് മാഡത്തിന് തരാം അതുപോലെ ഇപ്പം ഒര വേറെ പ്രൊഡക്റ്റ് കൂടുതൽ മേ മേടിക്കുവാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഫിഫ്റ്റി പെർസെൻറേജ് ഓഫ് ഉണ്ട് രണ്ട് പ്രൊഡക്റ്റ് കോമ്പോ ആയിട്ട് മേടിക്കുമ്പം അതായത് മിക്സി അതിൻറെ ഒപ്പം കുക്കർ അങ്ങനെ എന്തെങ്കിലും മേടിക്കുവാണെങ്കിൽ രണ്ടിനും കൂടെ കൂട്ടിയ ഫിഫ്റ്റി പെർസെൻറേജ് ആയിട്ട് ഡിസ്ക്കൗണ്ട് ഉണ്ട് ആ പഴയ മിസ് മിക്സി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓഫറും ഉണ്ട് അത് പഴയ മിക്സി ഏത് ബ്രാൻഡ് അനുസരിച്ചാണ് അത് അതിന്റെ കണ്ടീഷനിനസുരിച്ചത് നോക്കിയിട്ട് ഷോപ്പിൽ കൊണ്ടുത്തന്ന് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഒറ്റ ഒറ്റത്തവണ തന്നെ പ്രൈ പൈസ അടയ്ക്കേണ്ട അല്ല ഇ എം ഐ ആയിട്ട് മാസം മാസം അടച്ചെടുക്കുന്ന സ്കീമും ഉണ്ട്

അതെ ആ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളത് മാഡം ഡയറക്റ്റ് ഷോപ്പിൽ കൊണ്ടുവന്നാൽ മതി അപ്പോൾ അതിന്റെ എക്സ്പേട്ട് നോക്കിയിട്ട് വേണ്ടത് ചെയ്തുതരും പിന്നെ ഇ എം ഐ ഓപ്ഷൻ ആണെങ്കിൽ നമുക്കിപ്പം എത്ര എമൗണ്ട് കൈയിലുണ്ടോ അത് പേ ചെയ്തിട്ട് ബാക്കി നമുക്ക് ഇ എം ഐ ഇട്ട് എടുക്കുകയും ചെയ്യാം ഒരു ആറ് മാസത്തിനുള്ളിൽ അടച്ച് തീർത്താൽ മതി നേരെ ഷോപ്പിലോട്ട് വരുവാണോ അതോ ഞങ്ങൾ ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചെയ്യണോ ആ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമായിരുന്നോ മാഡം വാഷിങ്ങ് മെഷീൻ എന്ത് ഫ്രണ്ട് ഡോർ ആണോ ഏത് റേഞ്ച് ആണ് നോക്കുന്നത് ആ ശരി ശരി ഓക്കെ മാഡം വേറെ എന്തെങ്കിലും അറിയാൻ ഉണ്ടായിരുന്നോ ഓക്കെ ശരി താങ്ക് യു